മലയാള ഭാഷ എന്ന് പറയുന്നത് തന്നെ കേരളത്തിൻ്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിലും അതുപോലെ തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിലും നിർണ്ണായകമായ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് ഭാഷയെന്നത് ഒരു സമൂഹത്തിൻ്റെ ഒരാത്മാവാണ് കേരളത്തിലെ പാരമ്പര്യങ്ങൾ ആചാരങ്ങൾ വിശ്വാസങ്ങൾ കലാരൂപങ്ങൾ തുടങ്ങിയവയെല്ലാം മലയാളത്തിലൂടെയാണ് തലമുറകളിലേക്ക് പകർന്ന് നൽകപ്പെട്ടത് അതിനാൽ തന്നെ മലയാളം കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ ആദ്യ സംസ്കൃത മാല അതുപോലെ തന്നെ ആധ്യാത്മ രാമായണം കുഞ്ചന് നമ്പ്യാരുടെ ഒട്ടേറെ തുള്ളൽ പാട്ടുകൾ വള്ളത്തോളിൻ്റെയും കുമാരനാശാൻ്റെയും സാഹിത്യസൃഷ്ടികൾ തുടങ്ങിയവ മലയാള ഭാഷയുടെ ശക്തിയുടെയും അതിൻ്റെ സംസ്കാരപരമായ ആഴത്തിൻ്റെയും തെളിവുകളാണ് നാടൻ പാട്ടുകൾ കഥകളിപ്പാട്ടുകൾ ഓണക്കഥകൾ ഓണപ്പാട്ടുകൾ എന്നിവയിലും മലയാളം അതിൻ്റെ പാരമ്പര്യത്തെ വളരെയധികം നിലനിർത്തുന്നുണ്ട് നാടോടി കലാരൂപങ്ങൾക്കും ഭക്തിഗാനങ്ങൾക്കും അതുപോലെ തന്നെ ഉപയോഗിച്ച ഭാഷ മലയാളമാണ് ഇതിലൂടെ ഗ്രാമീണ ജീവിതത്തെ നന്നായി പ്രതിഫലിപ്പിക്കുകയും സംസ്കാരത്തെ ജനങ്ങൾക്കിടയിൽ ജീവിപ്പിച്ചിരുത്തുകയുമാണ് മലയാളം ചെയ്യുന്നത് പ്രാദേശിക കലയെക്കാൾ ആഴമുള്ള ആത്മീയതയും സാമൂഹിക സന്ദേശങ്ങളും ഈയൊരു മലയാള സാഹിത്യത്തിൽ നമുക്ക് കാണാനാകും അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ സിനിമ ടെലിവിഷൻ സമൂഹമാധ്യമങ്ങൾ എന്നിവയും മലയാളത്തിൻ്റെ പ്രചാരണത്തിന് വലിയ വേദികളായി മാറിയിരിക്കുന്നുണ്ട് ഈയൊരു പുതിയ മാധ്യമങ്ങളിലൂടെ പുത്തൻ തലമുറയിൽ മലയാളം ജാഗ്രതയോടെ നിലനിർത്തപ്പെടുകയും അതിൻ്റെ മൂല്യങ്ങളും സംസ്കാരവും പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മലയാളം എന്നത് ആശയവിനിമയത്തിനുള്ള ഏക ഉപാധിയെന്നതിന് പുറമേ കേരളത്തിൻ്റെ സാംസ്കാരിക ആത്മാവിനും ഐക്യത്തിനും അടിത്തറ പാകുന്ന വളരെയധികം ശക്തമായ ഒരു ശക്തി കൂടിയാണ് അതിനാൽ ഭാഷയെ വളർത്തുകയെന്നത് ഒരു സംസ്കാരത്തെ സംരക്ഷിക്കുന്നതിൻ്റെ ആദ്യപടി തന്നെയാകുന്നുവെന്നതിൽ യാതൊരു സംശയവുമില്ല